ഏടാ ഇന്നത്തെ മൂവി മാരത്തോണിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മുടെ തലയിൽക്കുടിയാണ് പോവുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി വേണം നമ്മൾ ഒരു എന്താ പറയുന്നത് കോമഡിയാക്കിയാലോ

പിന്നെന്താ എൻ്റെ മനസ്സിലോട്ട് ആദ്യമേ വന്നത് കോമഡിയല്ല പക്ഷേ കുറച്ച് ക്രിഞ്ചാണ് എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നയൊരു ഓൾ ടൈം ഫേവറേറ്റ് മൂവി വിനീത് ശ്രീനിവാസൻ്റെ തട്ടത്തിൻ മറയത്ത് റൊമാൻ്റിക്കാണ് എന്താ ഒരു ലവ് സ്റ്റോറി അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും യൂത്തൊക്കെയല്ലേ ഫുള്ള് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിഹാലേ നിനക്കിഷ്ടപ്പെട്ടോ ഐശ്വര്യാ തട്ടത്തിൻ മറയത്ത് എങ്ങനെയുണ്ട് അപ്പോൾ തട്ടത്തിൻ മറയത്ത് നമുക്ക് ചെയ്യാം അല്ലേ അതുപോലെ റൊമാൻ്റിക്കായിട്ടുള്ള മൂവീസ് വിനിത് ശ്രീനിവാസൻ്റെ ഡയറക്ഷനിലുള്ള മൂവീസ് നമുക്ക് ചെയ്യാം അതല്ലേ നല്ലത് അതാവുമ്പോൾ എല്ലാവരെയൊന്ന് ആകർഷിക്കുകയും ചെയ്യും എല്ലാവരും കാണുകയും ചെയ്യും റൊമാൻ്റിക്കിന് ഒന്നുകൂടി കാണാൻ തോന്നും അതാണ് പുള്ളിയുടെ സിനിമകളുടെ പ്രത്യേകത